ഞങ്ങളുടെ പ്രദേശത്ത് മെയ്ൻ ആയിട്ടും രണ്ട് സ്കൂളുകളാണ് വരുന്നത് ഒരെണ്ണം ഒരു ഗവൺമെൻ്റ് സ്കൂളാണ് വരുന്നത് പിന്നെ ഞങ്ങളുടെ പള്ളിയുടെ തന്നെ സാന്ത്വം എന്ന് പറയുന്ന കുഞ്ഞ് സ്കൂളാണ് വരുന്നത് ഞങ്ങളുടെ പരിസരത്തുള്ള കുട്ടികളെല്ലാം മൂന്ന് സ്കൂളാണ് വരുന്നത് സോറി ഒരു ഹൈ സ്കൂളും വരുന്നുണ്ട് ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ ഹൈ സ്കൂള് ഉണ്ട് ചെറിയ യൂ പി സ്കൂളുണ്ട് അതുതന്നെ അല്ലാതെ കുഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിൻഡർഗാർഡൻ ഉണ്ട് ഇങ്ങനെ മൂന്ന് സ്കൂളുകളാണ് നമ്മുടെ പരിസരത്ത് വരുന്നത് എനിക്ക് മൂന്ന് സ്കൂളുകളൂം നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് കാരണം സാന്ത്വമാണെങ്കിലും നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെ പരിശീലനം കൊടുക്കുന്നതാണ് അപ്പം അവർ നല്ല രീതിയിൽ പരിശീലനം കൊടുത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഫോമേഷൻ കൊടുക്കുന്നതാണ് അത് നമുക്ക് കുട്ടികൾ പള്ളിയിലേക്ക് വരുമ്പോളാണെങ്കിലും അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നു പിന്നെ മറ്റ് രണ്ട് സ്കൂളുകളിൽ കിടങ്ങാറായിലെ രണ്ട് സ്കൂളുകളാണെങ്കിലും നല്ല രീതിയിൽ ഫങ്ങ്ഷൻ ചെയ്യുന്ന സ്കൂളുകളാണ് അവിടെ എ പ്ലസൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് വലിയ വലിയ സ്കൂളുകളിൽ പോകണോ എന്നോ അങ്ങനെയൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ആ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പം നല്ല ടീച്ചേസ് ആണ് അവിടെ ഉള്ളത് അപ്പം കുട്ടികളിൽ നിന്ന് അഭിപ്രായമൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട് പഠനം എന്നൊക്കെ ചോദിക്കുമ്പം അവർ പറയുന്നത് കേൾക്കാം നല്ല ടീച്ചേസ് ആണ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ